ഞാൻ ഈ അടുത്ത് ഒരു മൊബൈൽ ഫോൺ മേടിച്ചിരുന്നു അതെന്ന് പറയുമ്പോൾ എൻ്റെ മൂന്നാമത്തെ മൊബൈൽ ഫോണാത് ശരിക്ക് അപ്പം ഈ ഫോൺ എൻ്റെ ഈ സെറ്റിൻ്റെ പേര് റിയൽമി എയ്റ്റ് പ്രൊ എന്നാണ് അപ്പം എന്താണ് എനിക്ക് അതിനെ കുറിച്ച് പറയണ്ടതെന്ന് അറിയില്ല കാരണം അത്രയും നല്ല ഫോണാണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോണാണ് അതായത് എന്താണ് പറയുക ഞാൻ കുറച്ച് നാളായി കണ്ടതിൽ വച്ച് ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ പറയണം ഇതിനെ ഇപ്പം എക്സ്പീരിയൻസ് നല്ല എക്സ്പിരിയൻസ് ഒക്കെ പറയാം എന്ന് പറഞ്ഞാൽ കുറേ ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാന്നൊക്കെ വച്ചാൽ ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ച്ച മുന്നേ എനിക്ക് ഒരു അർജൻ്റ് മീറ്റിങ്ങ് ഉണ്ടായിരുന്നു അപ്പം അതിന് എനിക്ക് ഒരു നാല് റെക്കോർഡിങ്ങ്സ് വോയിസ് റെക്കോർഡിങ്ങ്സ് വേണമായിരുന്നു അപ്പം അത് നാലും ഒരു അഞ്ച് മിനിറ്റൊക്കെ വരുന്ന നാല് വീഡിയോസായിരുന്നു ഐ മീൻ വോയ്സ് റെക്കോർഡ്സ് ആയിരുന്നു അപ്പം എനിക്ക് ഇത് എന്തായാലും വേണന്നൊള്ളോണ്ടന്നെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ട് വച്ചിരുന്ന ഒരു ഇതായിരുന്നു പക്ഷേ എൻ്റെ കൈ തട്ടിയിട്ട് അതങ്ങ് ഡെലീറ്റ് ആയി പോയിരുന്നു ഞാൻ ശരിക്കും പെട്ടു എന്ന് തന്നെ വിചാരിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് കാരണം ഇനി നമുക്ക് ആ വോയിസ് റെക്കോർഡിങ്ങ്സ് കിട്ടില്ലങ്ങി ഞാൻ ഇപ്പം ഈ എടുത്ത പണിയൊക്കെ പോയിട്ട് അത് എനിക്ക് വീണ്ടും ചെയ്യേണ്ടി വന്നേനെ ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു വോയിസ് റെക്കോർഡിങ്ങ്സ് ആയിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയണം ഈ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത് പെട്ടെന്ന് ഗ്യാലറിയിലോട്ട് എടുക്കാൻ പറ്റി ഡെലീറ്റ് ആയുള്ള ത്രാഷിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടന്ന് കിട്ടുകയും ചെയ്തു എനിക്ക് അത് എത്ര അത് ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഫോൺ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് കാരണം ആ നാല് വോയിസ് റെക്കോർഡിങ്ങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമായേനെ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ആ ഒരു ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് അത് കിട്ടി അതുകൊണ്ട് ഈ മൊബൈൽ ഫോണ് ശരിക്കും എൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്